എൻ്റെ പ്രിയപ്പെട്ട ഋതു എന്നു പറയുന്നത് ചൂടു കാലമാണ് സമ്മർ സീസൺ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ചൂടുള്ള കാലമൊക്കെയായിരിക്കും അത്പോലെതന്നെ നമുക്കെന്താ പറയുക നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നടക്കാൻ പറ്റുന്ന കാലമാണ് എന്നുവെച്ചാൽ അതിൻ്റെ പ്രത്യേകതയെന്ന് പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക അതെൻ്റെ പ്രിയപ്പെട്ടതാകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ പറയുക ചൂടുകാലം എന്നാകുമ്പോൾ നമുക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആലും ടൈം സ്പെൻ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ക്ലൈമറ്റ് ഒരു കാലമാണ് ഋതുവാണ് ചൂടുകാലം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമുക്കെവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിലും എന്തെങ്കിലുമൊക്കെയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും ആ സമയത്ത് മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് മഴയൊക്കെ ആകുമ്പോൾ പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഈ സമയം ഈ ചൂട് കാലമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ബീച്ചിലും പോകാം അതുപോലെതന്നെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെയായിട്ട് പുറത്ത് പോയി അടിച്ചുപൊളിച്ച് നടന്ന് നല്ല എൻജോയ് ചെയ്തു നടക്കാൻ പറ്റിയൊരു കാലമാണ് ഈ ചൂടുകാലമെന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് നല്ല നല്ല നല്ല ഫുഡ്സ് കഴിക്കാം പിന്നെ ഫ്രൂട്സ് അതുപോലെതന്നെ ഷേക്ക് ജ്യൂസ് അതേപോലെതന്നെ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക നല്ലൊരു ഈ ചൂടുകാലം വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തണുത്ത സാധനങ്ങളെ കഴിക്കുക അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഋതുവാണ് ചൂടുകാലം അല്ലെങ്കിൽ സമ്മർ സീസൺ എന്ന് പറയുന്നത്